പണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാവരും കണ്ട് മുട്ടാറുണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊന്നും ഇല്ലാത്ത ആൾക്കാര് തമ്മിൽ കണ്ട് മുട്ടൽ ഭയങ്കര സാധാരണമായിരുന്നു ആൾക്കാര് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും സംസാരവും അതിനാൽ എല്ലാവരും തമ്മിൽ ഒരു നല്ല കൂട്ട് ബന്ധവും നാട്ടുകാർ തമ്മിൽ ഒരു നല്ല ബന്ധവി ഉണ്ടായിരുന്നു ഇക്കാലത്ത് നാട്ടുകാർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ പോലും അറിയാത്ത ആൾക്കാരുമാണ് അയൽക്കാരുമായിട്ടാണ് ഇപ്പോൾ ബന്ധപ്പെടുന്നത് കുട്ടികൾ തമ്മിലോ വലിയ വലിയ ആൾക്കാർ അഡൾട്സ് തമ്മിലോ ഒരു സംസാരമോ ഒരു ബന്ധമോ ഇല്ലാത്ത പോലെയാണിപ്പോൾ ഒരു ഒത്തു കൂട്ടവും ഒന്നുമില്ലാതെ നടക്കുന്ന നാട്ടുകാരും ചെ കൂട്ടുകാരും അങ്ങനെ കൂട്ട് ബന്ധങ്ങളൊന്നും ഇല്ലാതായി പോകുന്നു അതിനാൽ ആൾക്കാർ തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ആ അമൂല്യവും നഷ്ട്ടപ്പെടുന്നു എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ നീങ്ങി പോകുന്നത്